ഹലോ ആ അതെ

ആ ആ പറഞ്ഞോ ആ ഞാൻ കഴിഞ്ഞ ദിവസം പേരന്റ്സ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആരാണ് വന്നത് വൈഫ് ആണ് വന്നതല്ലേ ആ റയാൻ കുഴപ്പമില്ല ക്ലാസ്സിൽ ഒന്നും കുഴപ്പമില്ല മാർക്ക് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു മാത്സിനും മലയാളത്തിനും ഒക്കെ കുറച്ച് മാർക്ക് കുറവാണെന്ന് തോന്നുന്നു

ക്ലാസ്സിൽ കുഴപ്പമില്ല ആക്ടീവ് ആണ് പക്ഷേ ഈ മാർക്ക് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഈ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്നാണോ പഠിക്കുന്നത് ഉം ക്ലാസ്സിൽ കുഴപ്പമില്ല പക്ഷേ പരീക്ഷയ്ക്ക് സമയത്ത് എന്താണ് പറ്റുന്നത് എന്നറിയത്തില്ല ഉം വീട്ടിൽ വന്നിരുന്ന് പഠിക്കാറുണ്ടോ വൈകുന്നേരം ഒക്കെ അതോ കളിക്കാൻ പോവുമോ ട്യൂഷൻ വല്ലതും കൊടുക്കുന്നുണ്ടോ ട്യൂഷൻ കൊടുക്കുന്നുണ്ടല്ലേ ട്യൂഷൻ പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ആവേണ്ടതാണ് അവന് മാത്സ് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കാറുണ്ട് ബോർഡിൽ ചെയ്യിക്കാറുണ്ടേ നമ്മൾ കുറച്ച് ഇതായിട്ട് ഇപ്പോൾ മാർക്ക് കുറഞ്ഞ പിള്ളേരെ ഞാനിപ്പോൾ സെലക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിലേ ക്ലാസ്സിൽ വെച്ച് അവരെ കൊണ്ട് ബോർഡിൽ വർക്ക് ചെയ്യിക്കാറുണ്ട് ബാക്കി ടീച്ചർമാരോടൊക്കെ ഞാൻ മാർക്ക് കുറഞ്ഞ കുട്ടികളെ ബാക്കി ടീച്ചർമാരോട് ബാക്കി സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർമാരുമായിട്ട് സംസാരിച്ചപ്പം ചില കുട്ടികൾ കുറച്ച് രണ്ട് മൂന്നാല് നമ്മുടെ ക്ലാസ്സിലൊരു നാലഞ്ച് കുട്ടികളേ ഉള്ളൂ പ്രശ്നം ഇങ്ങനെ മാർക്ക് കുറഞ്ഞതായിട്ട് ഉള്ളൂ അവന്റെ കാര്യത്തിൽ അത്ര വലിയ പ്രശ്നമില്ല പിന്നെ ഈ മാത്സ് ഞാൻ മാത്സ് ആണ് എടുക്കുന്നത് മാത്സ് പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ മുന്നോട്ട് ബുദ്ധിമുട്ടായിരിക്കും അതെ പ്രോബ്ലം നമ്മൾ ഇപ്പോൾ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല ബാക്കി സബ്ജക്റ്റ് ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും മാത്സ് ആകുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ അവരോട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് വീട്ടിൽ പോയിട്ട് അതെ മോഡൽ തന്നെ അത് തന്നെ അല്ല അതെ മോഡൽ ക്വസ്റ്റ്യൻ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എക്സാം ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ചെയ്യിക്കാറുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടോ വീട്ടിൽ വന്നിരുന്ന് റഫ് നോട്ടിൽ ചെയ്യുന്നുണ്ട് ഉം എന്തോ ആ എല്ലാ ടീച്ചർമാരും കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവ് ആണ് ബാക്കി എല്ലാ പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിലും ചേരാറുണ്ട് ആളെങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ആളല്ല എല്ലവരുമായിട്ട് നല്ല കമ്പനിയാണ് കുഴപ്പം ഒന്നുമില്ല വീട്ടിൽ എങ്ങനെയാണ് അതെ മാത്സിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ മാത്സിന് മാത്സിന് ട്യൂഷൻ കൊടുക്കാറുണ്ടോ ഏത് സബ്ജക്റ്റിനാണ് ട്യൂഷൻ കൊടുക്കുക എല്ലാ സബ്ജക്റ്റിനും എടുക്കുന്നുണ്ടോ കൊടുക്കുന്നുള്ളൂ അല്ലേ ആ പഷ് ട്യൂഷൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടിച്ചറിനോടും കൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കാൻ പറയണം നമ്മൾ എല്ലാ കുട്ടികളെയും കൂടെ ചെയ്യുമ്പോഴത്തേക്കിനുമേ എല്ലാവരെയും നമുക്കങ്ങനെ ശ്രദ്ധിച്ച് പോവാൻ പറ്റത്തില്ല അപ്പം വീട്ടിലും കൂടെ അവർക്ക് നല്ലൊരു ട്രെയ്നിങ് കൊടുത്താലേ നമുക്ക് ഇപ്രാവശ്യം എല്ലാവരെയും ജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ

ശരി ശരി ഓക്കേ താങ്ക് യൂ